ഞാൻ എന്റെ മോൾക്ക് എന്റെ മോൾടെ ബേര്ത്ഡേയ്ക്ക് അവൾക്കൊരു ഗിഫ്റ്റായിട്ട് ഒരു കവിത എഴുതി കൊടുത്തിരുന്നു മോൾക്കത് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തു ശരിക്കും പ്രകൃതി ഭംഗിയെക്കുറിച്ച് അവൾക്ക് നമ്മുടെ പ്രകൃതിരമണീയതയെക്കുറിച്ചിട്ട് തന്നെയാണ് ഞാനതെഴുതിയേക്കണത് നമ്മുടെ പാടവരമ്പും അതേപോലെ തന്നെ കിളികളുടെ ശബ്ദങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു കവിത ആണെഴുതിയത് അവള്ക്ക് വളരെയധികം അത് അവളത് സ്കൂളില് കോംപറ്റിഷന് അത് പങ്കെടുക്കുകയും ആ കവിത അവതരിപ്പിക്കുകയും ചെയ്തു അവള്ക്കതിന് പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് ഞാൻ വളരെയധികം അഭിമാനിച്ചു എനിക്കെത്രയും ആയിട്ട് എഴുതാൻ പറ്റിയല്ലോ അല്ലെങ്കിലെന്റെ മകള് അത് പാടി പ്രൈസ് വാങ്ങിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമെനിക്ക് എന്നുമുണ്ടായിട്ടുണ്ട് എനിക്ക് എഴുതാൻ അത്ര വലിയ വശമില്ലെങ്കിൽപ്പോലും ഞാനെന്തോ ഒരു മനസ്സിന്റെ ഇതുവെച്ചിട്ട് വളരെ നല്ല രീതിയിൽത്തന്നെയാണ് എഴുതിയത് അത് അതിന് പ്രോത്സാഹനം കിട്ടി അത് എന്നുമെന്റെ ജീവിതത്തില് ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു